ഞാൻ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാന് വേണ്ടിയിട്ട് ഒരു ഡൈനിങ്ങ് ടേബിൾ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൈനിങ്ങ് ടേബിൾ നമ്മൾ ഓഡർ ചെയ്യണ സമയത്ത് അതില് തേക്കിന്റെ തേക്കിന്റെ മെറ്റീരിയൽ ആണെന്നാണ് അവര് പറഞ്ഞത് നല്ല ഫിനിഷ് ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈനിൽ പ്രൊഡക്ട് ചൂസ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെയായിട്ടുള്ള നല്ല അടിപൊളി പിക്ചര് ഒക്കെയാണ് അവര് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഓഡറ് ചെയ്ത് രണ്ടു ദിവസത്തിനുള്ളിൽ വരികയൊക്കെ ചെയ്തു പക്ഷെ സംഭവം വന്നിട്ട് നോക്കുമ്പോൾ മരത്തിന്റെ ക്വാളിറ്റി അത് തേക്കിന്റെ ഒന്നുമല്ല അത് ഏതോ സാധാരണ മരമായിരുന്നു പിന്നേ അതിന്റെ സൈഡ് ഇപ്പോൾതന്നെ പൂതലിച്ചു തുടങ്ങി ഇപ്പോൾ ഞാനത് പിന്നെ റിട്ടേണ് അടിക്കാന്വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് അതിന്റെ സൈഡിലെ ഒക്കെ ഫിനിഷിങ്ങും മാര്ട്ടും മറ്റെ കുറച്ച് കൊത്തുപണിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഞാന് ഓഡറ് ചെയ്യുമ്പോൾ ഇത് വന്നപ്പോൾ ജസ്റ്റ് പ്ലെയിന് ഒരു സാധാരണ ഈ നാല് സ്കൂള് ബഞ്ച് അടുപ്പിച്ച് ഇട്ടപോലത്തെ ഒരവസ്ഥയായിരുന്നു അത് ഭയങ്കര മോശം പ്രൊഡക്ടായിരുന്നു അത് പെട്ടന്ന് കേടുവരാന് പോകണ പോലത്തെ അതുകൊണ്ട് ഞാനത് റിട്ടേണാക്കി